പക്ഷികള്ക്കായി പൂന്തോട്ടത്തില് ധാന്യങ്ങളും വെള്ളവും വെച്ചുകൊടുക്കാറുണ്ട് അതിനായി പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോള് അവര്ക്കത് വളരെ സൗകര്യപ്രദമായിരിക്കും ആളുകള് കൂടി നില്ക്കാത്ത സ്ഥലങ്ങളില് വെള്ളവും ധാന്യങ്ങളും വെച്ചു നല്കിയാല് അത് അവര്ക്ക് പ്രയോജനമായിരിക്കും പ്രത്യേകിച്ച് ഈ വേനല്ക്കാലത്ത് അവര് വെള്ളത്തിനായി വളരെ ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന സമയത്ത് വെള്ളം വെച്ച് കൊടുക്കുന്നത് അവര്ക്ക് വളരെ സൗജ സൗകര്യപ്രദമായിരിക്കും പിന്നെ വീട് മുറ്റത്തുതന്നെ പൂക്കളും മറ്റ് മരങ്ങളും വയ്ക്കുന്നത് പക്ഷികളെ ആകര്ഷിക്കുന്നതിനുള്ള വളരെ നല്ലൊരു കാര്യമാണ് പൂക്കളും ഫലങ്ങളും കാണുമ്പോള് തന്നെ പക്ഷികള് നമ്മുടെ വീടുകളിലേക്ക് വന്ന് ചേരാറുണ്ട് അവര്ക്ക് വെള്ളവും ധാന്യവും കൊടുക്കുന്നതും നല്ലൊരു കാര്യമാണ്